ഈ സാങ്കേതിക വിദ്യേനേക്കുറിച്ചും അതുപോലെ വിനോദത്തെക്കുറിച്ചൊക്കെ പറയാണെങ്കിൽ വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് കാലത്തെന്ന് പറയുന്നത് നമ്മളെന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ അതൊന്നുല്ലങ്കിൽ ടെലിവിഷൻ അല്ലെങ്കിൽ റേഡിയോ അല്ലെങ്കിൽ പത്രം ഈ മൂന്ന് മാർഗ്ഗങ്ങളിലൂടൊക്കെയണ് നമ്മൾ ന്യൂസ്സ്കളും കാര്യങ്ങളക്കെ അറിഞ്ഞോണ്ടിരുന്നത് ഇപ്പോഴെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഒരുപാട് മാറി ലോകം തന്നെ ഒരുപാട് മാറി ഇപ്പിൻടർനെറ്റ് യൂട്യൂബ് അതിൽ ക്രോം അതുപോലെ ഒരുപാട് ആപ്പ്കൾ അങ്ങനെ ഇസ്റ്റാഗ്രാം വാട്സ്പ്പ് അങ്ങനെ എല്ലാം ഇൻടർനെറ്റ് വഴി നമുക്ക് ഇപ്പം കേൾക്കാനും അറിയാനും കാണാനൊന്നും പറ്റാത്തതായിട്ട് ഒന്നും തന്നില്ല ഇപ്പമൊരു പാട്ട് കേൾക്കണങ്കിൽ തന്നെ നമ്മളൊന്ന് ജെസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിഷ്ടൊള്ള പാട്ട്കളെപ്പം വേണമെങ്കിലും ഏത് നിമിഷം വേണേലും കേൾക്കാമ്പറ്റും അങ്ങനത്തെ ഒരു കാലം ഈ ഒരു കാലഘട്ടമെന്ന് പറയുന്നത് ഒരുപാട് മാറി ഒരൂപാട് സാങ്കേതിക വിദ്യകളും അത് പോലെ ഉപകരണങ്ങളും എല്ലാം എല്ലാങ്കൊണ്ടും ലോകം തന്നെ ഒരു മാറീരിക്ക്യാണ് നമുക്കപ്പം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അപ്പപ്പത്തന്നെ ചെയ്യാം ഇപ്പം ഇപ്പോൾ പണ്ട് കാലത്ത്ന്നക്കെ പറയുന്നത് നമ്മളെവിടെങ്കിലൊക്കെ പോകുമ്പോൾ ഡ്രെസ്സ്കളക്കെ എടുക്കാണെങ്കിൽ പോകാൻ തന്നെ പുറത്ത് പോയി നമ്മൾ പോയി എടുക്കണം പക്ഷേ ഇപ്പം അങ്ങനൊന്നും വേണ്ട ഇപ്പം പുതിയ ആപ്പ്കൾ ഇതക്കെ ഇൻസ്റ്റാള് ചെയ്ത് ഇതീന്ന് നമുക്ക് ജെസ്റ് ഓഡ്റ് ചെയ്താൽ നമ്മളുടെ വീട്ടിലെത്തി തരാണ് നമ്മളെന്താണ് ആവശ്യപ്പെടുക നമക്കെന്താണാവശ്യമെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ബുക്ക് ചെയ്ത ഓഡ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ ഫ്രെണ്ടിൽ കൊണ്ടന്ന് തരാണ് അങ്ങനെ അത്രക്കത്ര വിദ്യകളും സാങ്കേതിക വിദ്യകളും അപ്പ്കളക്കെ ഇപ്പം നമ്മുടെ ഇതിൽ വന്നു അപ്പോൾ അത്യാവശ്യം ഇപ്പത്യാവശ്യമായിട്ട് അതുപോലെ തന്നെ ഈ ജോലീടെ ജോബാപ്പ്ളിക്കേഷനക്കെ അയക്കണങ്കിത്തന്നെ നമ്മൾ പുറത്ത് പോയി അയക്കണെങ്കിൽ അയക്കാം അല്ലെങ്കിൽ നമുക്കെല്ലാം നമ്മളുടെ സ്വന്തമായിട്ട് ഇതെല്ലം ഒരു മൊബൈലുണ്ടെങ്കിൽ നമുക്കെല്ലാം സ്വന്തമായിട്ടന്നെ ചെയ്യാം അതുപോലെ അങ്ങനെയാണ് ഒരുപാട് മാറീരിക്കുന്നത് വിനോദം ഒരുപാട് സാങ്കേതിക വിദ്യ കാരണം വിനോദങ്ങൾ എങ്ങനെ മാറീരിക്കുന്നു ചോദിച്ചാൽ ഇങ്ങനക്കെയാണ് മാറീരിക്കുന്നത് അത്പോലെ തന്നെ ഇക്കാലത്ത് ഫോണിലാൾക്കാർ വീഡിയോ പറഞ്ഞില്ലേ ഇക്കാലത്താളുകൾ ഫോണിൽ വീഡിയോ കാണുന്നതും പാട്ട് കേൾക്കുന്നതക്കെ ഇപ്പം ഇൻടനെറ്റ് വഴിയാണ് പണ്ട് കാലത്തെന്ന് പറയുന്നതാണ് റേഡിയോൽ വന്ന പാട്ട് നമ്മളത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം അല്ലെങ്കിൽ അത് വരാൻ നോക്കീരിക്കണാര്ന്ന് ഇപ്പം നമുക്കത് നമക്കോൺ ദ സ്പോട്ടിലന്നെ നമുക്കിഷ്ടമുള്ള പാട്ട്കൾ കേൾക്കാം അത്പോലെ വീഡിയോസ് കാണാം എല്ലാം ചെയ്യാം ഇങ്ങനെക്കെയാണ് മാറീരിക്കുതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ മാറീരിക്കുന്നത്